ഇരുപത്തി നാല് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി ഒൻപത് മുപ്പത് ആറ് രണ്ടായിരത്തി പതിനൊന്ന് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്